ഇന്ഡ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി ഉത്സവങ്ങളും അവധി ദിനങ്ങളുമുണ്ട് ഉത്സവങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണം ക്രിസ്മസ് റംസാന് അതുപോലെതന്നെ ഹോളി അങ്ങനെയുള്ള നിരവധി ഉത്സവങ്ങള് നമ്മുടെ രാജ്യത്ത് ഉണ്ട് അതുപോലെ അവധി ദിനങ്ങളെന്ന് പറയുന്നത് ഒരുപാടുണ്ട് ഇപ്പോള് മുഹറം അവധി ദിനമാണ് ശിവരാത്രി അവധി ദിനമാണ് അങ്ങനെ നിരവധി അവധി ദിനങ്ങള് നമ്മുടെ രാജ്യത്ത് ഉണ്ട് ഇപ്പോള് ഇന്ഡ്യയിലെ പ്രത്യേകിച്ചും മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ഓണത്തെക്കുറിച്ച് ഉള്ള ഐതിഹ്യം പിന്നെ മാവേലി എന്നൊരു രാജാവ് നമ്മുടെ നാട് ഭരിച്ചിരുന്നുവെന്നും ആ കാലഘട്ടത്തില് എല്ലാ മനുഷ്യരും സമന്മാരായിരുന്നു ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നുവെന്നും നമ്മുടെ രാജ്യത്ത് ഐശ്വര്യവും സമാധാനവും ആ കാലഘട്ടത്തില് നിലനിന്നിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം അതുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്നവരാണ് അത് ജാതിമത ഭേദമന്യേ ക്രിസ്ത്യാനികളും മുസ്ലീങ്ങളും ഹിന്ദുക്കളുമെല്ലാം ഒരുപോലെ ആഘോഷിക്കുന്ന നാടിന്റെ ഒരുത്സവമായിട്ട് കൊണ്ടാടുന്ന ഒന്നാണ് ഓണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ വിവിധ എല്ലാ ഗ്രാമങ്ങളിലും ഓണമെന്ന് പറയുന്നത് ജനങ്ങള്ക്ക് എല്ലാം മറന്ന് ആഘോഷിക്കാനും ആനന്ദിക്കുവാനുമുള്ള ഒരവസരമാണ് അതുപോലെതന്നെ ഹോളി അതുപോലെ പ്രത്യേകിച്ച് ഉത്തരേന്ഡ്യയിലാണ് നമ്മുടെ രാജ്യത്ത് ഹോളി ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് അതുപോലെതന്നെ ക്രിസ്മസ് ഈസ്റ്റര് പിന്നതുപോലെതന്നെ റംസാന് ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ എല്ലാവരും ആഘോഷിക്കുന്നതാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഹോളി എല്ലാവരും കളര് ഉപയോഗിച്ച് മുഖത്ത് ദേഹത്തും വസ്ത്രങ്ങളിലും എല്ലാം കളര് പൂശി ആഘോഷിക്കുന്ന ഒന്നാണ് ഹോളി എന്ന് പറയുന്നത്